ഓരോ കളികളും സാമൂഹ്യ ഐക്യത്തെ സൂചിപ്പിക്കുന്ന കളികളാണ് ഉദാഹരണം തന്നെ ഇപ്പോൾ ഒരു ഒപ്പന ഒരു ടീമായിട്ട് കളിക്കുന്നുയെന്ന് വച്ചോ അല്ലെങ്കിൽ ഒരു തിരുവാതിര അല്ലെങ്കിൽ ഒരു മാർഗ്ഗംകളി അപ്പോൾ തന്നെ ഒരു സമൂഹം അവിടെ രൂപപ്പെടുകയാണ് ഒരു ഐക്യം അവിടെ ഉണ്ടാവുകയാണ് ഇത്രയും ഒരു പന്ത്രണ്ട് പേരൊരുമിച്ച് കൂടി ഒരു ഒരു കളി കളിക്കുകയാണെങ്കിൽ അവരുടെ പല രീതിയിലുള്ള ടേസ്റ്റുള്ളവർ പല വീടുകളിൽ നിന്ന് വരുന്നവർ പല പല ചെലപ്പം ഭാഷ ഒന്നാണെങ്കിലും ഒരു സ്ലാങ്ങിൽ വ്യത്യാസം ഉള്ളവർ അല്ലെങ്കിൽ പല രീതിയിൽ വളർന്നു വന്നവർ പക്ഷേ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഒരു കളി അവർ അത് പഠിച്ചെടുക്കുന്ന സമയം കൊണ്ട് അവരൊരു നല്ല സമൂഹത്തെക്കൂടി ഒരു ഐക്യം ഉള്ള സമൂഹത്തെക്കൂടി വളർത്തിയെടുക്കുകയാണ് നല്ലൊരു സ്നേഹബന്ധം ഉണ്ടാവുകയാണ് ഒരു ഐക്യം ഒരു സാമൂഹിക ഐക്യം അവിടെ വന്നു ചേരുകയാണ് ഇതുവഴി മനുഷ്യരിലുള്ള ചില കുറവുകളെല്ലാം മാറി അത് ഒരു നല്ല ഒരു പോസിറ്റീവ് എനർജി വന്നു നിറയാനായിട്ട് പറ്റിയ ഒരു പരിപാടിയാണ് ഈ കളികൾ പല വിധത്തിലുള്ള കളികൾ സാമൂഹ്യ ഐക്യം അവിടെയുണ്ടാവുകയാണ് ചിലവർക്ക് ഡിഫറൻ്റായിട്ടുള്ള പല വിധത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാകാം പക്ഷേ ഈ അഭിപ്രായങ്ങളെല്ലാം പല കളികളിലും അതൊക്കെ മാറ്റി വച്ചിട്ട് ഒരു ഇങ്ങനെ കളിച്ചാൽ ഇത് കറക്റ്റാവൂ എന്നുള്ളൊരു തോട്ട് വരുമ്പോൾ അവരെല്ലാവരും സ്വന്തം അഭിപ്രായവും മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കാനും പഠിക്കും അങ്ങനെ ഒരു സാമൂഹിക ഐക്യം ഞാൻ സമൂഹത്തിൽ ജീവിക്കുമ്പോഴ് ഒരു ഐക്യത്തോടെ അല്ലെങ്കിൽ മറ്റുള്ളവരേയും കൂടെ മാനിച്ച് ജീവിക്കണമെന്നുള്ള ഒരു തോട്ട് അവിടെയുണ്ടാവുകയും ഒരു സാമൂഹിക ഐക്യം അവിടെ പ്രോത്സാഹിപ്പിക്കുകയും ഉണ്ടാവുകയും ചെയ്യുന്നു ഈ പല കളികൾ ഒരുവിധത്തിൽ നോക്കിയാൽ ഒരു നല്ലൊരു കാര്യമാണ് കുട്ടികളെ ഓരോ കളിയിലും വിനോദത്തിലേക്കും വിടുമ്പോഴും അവരുടെ ഉള്ളിൽ നിന്നും പുതിയ പുതിയ ആശയങ്ങളും സ്നേഹവും ഒരു എന്ത് പങ്കുവെക്കലിൻ്റെ ഒരു നല്ല മനോഭാവവും അങ്ങനെ പല വിധത്തിലുള്ള ആശയവിനിമയവും എല്ലാം ഉണ്ടാകുന്നത് ഒരു പുതിയ കളികളുലൂടെ ആണ് ആ കളികൾ സാമൂഹിക ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പല വിധത്തിലുള്ള കളികളാണ് നമ്മളുടെ ഈ ഓരോ കളികളും കൊണ്ട് നമ്മുടെ സാമൂഹിക ഐക്യത്തെ ബലപ്പെടുത്താൻ പറ്റിയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്